ആ ഹലോ ഡോക്ടർ

മഴ വല്ലതും നനഞ്ഞിരുന്നോ ആ വീട്ടിൽ ആർക്കെങ്കിലും പനി ഉണ്ടോ

ആ ആശുപത്രിയിലൊന്നും കാണിച്ചില്ലെ ആ ആ

രണ്ടു ദിവസം കഴിയുമ്പം പനി കുറഞ്ഞില്ലെങ്കിൽ എന്നെ വന്ന് കാണണം

തണുത്തവെള്ളം എങ്കിലും എന്തെങ്കിലും കുടിച്ചിരുന്നോ ആ പനിയും തൊണ്ടവേദനയും ഒന്നും കുറഞ്ഞില്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം എന്നെ വന്ന് കാണിച്ചാൽ മതി

ആ ചുമ ഇപ്പം ചുമയും പനിയും തൊണ്ടവേദനയൊക്കെ മഴ നനഞ്ഞതിൻ്റ ആയിരിക്കും

ആ ആശുപത്രിയിൽ കാണിച്ചാലും മതി ആ വൈകുന്നേരം ഉണ്ടാവും